ഇപ്പോൾ നമ്മുടെയൊക്കെ ഗ്രാമ പ്രദേശങ്ങളില് ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ എന്താ പറയുക സാമ്പത്തിക പരമായിട്ടുള്ള സഹായം അതാണ് ആർക്കും ലഭിക്കാണ്ട് പോകുന്നത് അപ്പം അത്തരത്തിലുള്ള സഹായങ്ങളാണ് കൂടുതലും ആൾക്കാർക്ക് നമ്മള് എന്താ പറയുക കൊടുക്കേണ്ടത് പിന്നേ സാമ്പത്തികമായിട്ട് മാത്രമല്ല അവർക്കത് എങ്ങനത്തെ സംരംഭമാണ് തുടങ്ങേണ്ടത് എന്ത് തുടങ്ങിയാലാണ് അവിടേ മെച്ചപ്പെടുന്നത് എന്നുള്ളൊരു ഇതൊന്നും അവർക്ക് കിട്ടിക്കോണം എന്നില്ല അപ്പം അങ്ങനൊരു ബുദ്ദിമുട്ടും കൂടേ അവര് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് പിന്നേ പറയുകയാണെങ്കില് ഇപ്പോൾ ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രശ്നങ്ങള് അതായത് പഞ്ചായത്തിൽ നിന്നും അവിടുന്നും ഇവിടുന്നുമൊക്കെ സാങ്ക്ഷനും കാര്യങ്ങളുമൊക്കെ നേരിടേണ്ട ഒരു വേണ്ടിയിട്ട് വരുന്നുണ്ട്

ഇവർക്കൊക്കേ ഈ സംരംഭത്തിലൂടെ എന്താ പറയുക കിട്ടുന്ന വരുമാനത്തിലൂടെയാണ് അവര് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ബോധം അവർക്കുള്ളത് കൊണ്ടാണ് അവര് ഇതിന് വേണ്ടിയിട്ട് ഇപ്പഴും ഇങ്ങനേ ബുദ്ധിമുട്ടി നടക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അവര് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സംരംഭത്തിന് വേണ്ടിയിട്ട് പരാമാവധി ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതൊക്കേ ചെയ്ത് കൊടുക്കുക എന്നതാണ് നമ്മള് ചെയ്യണ്ടതായിട്ടുള്ള കാര്യം